ഞാന് സ്കൂളിൽ പഠിക്കുന്ന ടൈമില് മാരത്തോൺ മാരത്തോ മാരത്തോണിലൊന്നും പങ്കെടുത്തിട്ടില്ല പക്ഷെ ജോലിയുടെ ഭാഗമായിട്ട് മലപ്പുറത്ത് മാരത്തോൺ നടത്തുന്ന മാരത്തോണില് സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ട് നമ്മുടെ പിന്നേ മാരത്തോൺ വളരെ നല്ലൊരു കാര്യമാണ് മാരത്തണിലേറ്റവും പി ടി ഉഷയെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് പി ടി ഉഷമാരുടെ പി ടി ഉഷയുടെ ഇന്ത്യ കണ്ട മികച്ചൊരു അത്ലെറ്റ് കായിക തരങ്ങളിലൊന്നാണല്ലോ ഒന്നാണ് പി ടി ഉഷ ഇന്ത്യ കണ്ട മികച്ച ഓട്ടക്കാരിയാണ് പി ടി ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് പത്മശ്രീ ബഹുമതി അർജുന അവാർഡ് ഉഷ കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തില് അന്താരാഷ്ട്ര മത്സരങ്ങളിലാണ് ഇന്ത്യനെ ഇന്ത്യയുടെ കായിക താര മെയിൻ അത്ലറ്റായ പി ടി ഉഷ വിരമിച്ചു ഇപ്പളും വളർന്നു വരുന്ന കായിക പ്രതിഭകളെ പരിശീലിപ്പിക്കാൻ ഉഷാ സ്കൂൾ ഓഫ് അത്ലെറ്റിക് നടത്തി വരുന്നുണ്ട് ലോക അത്ലത്റ്റ്സിൽ മികച്ച പത്ത് താരങ്ങളിൽ ഒരാൾ ഉഷയായിരുന്നു ഉഷയ്ക്ക് മുമ്പ് പിന്നീട് ഇന്ത്യയിൽ നിന്ന് ഒരാള് ഈ ലിസ്റ്റില് ഇടം നേടിയിട്ടില്ല തീരെ ചെറുപ്രായത്തിൽ തന്നെ ഉഷയിലെ പ്രതിഭ തിരിച്ചറിഞ്ഞത് ഒ നമ്പിയാർ എന്ന വ്യക്തിയാണ് അന്ന് അന്ന് ഞാൻ എവിടെ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു പിന്നീട് ഉഷയുടെ കാ കായിക ജീവിതത്തിലെ പരിശീലന സ്ഥാനം ഏറ്റടുത്തത് ഇയാളാണ് ഒ എൻ നമ്പ്യാരെന്ന് പറഞ്ഞ വ്യക്തിയാണ്